കുട്ടികൾക്കിത് ഇന്ന് സ്കൂളുകളിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് ഉള്ള ഇത് കിട്ടിയാലാണ് പഠനകാലം തൊട്ടേ ഇത് ഇതിനെ പറ്റി കിട്ടിയാലാണവർക്ക് മുന്നോട്ട് പോകുമ്പോഴ് അതിനെ പറ്റി അറിയാൻ കഴിയുന്നത് പിന്നെ വായ്പയെ കുറിച്ചൊക്കെ അറിയണമെങ്കില് ഇപ്പോൾ എല്ലാത്തിനും ലോണ് കാര്യങ്ങളായി അങ്ങനത്തെ വായ്പകളെ കുറിച്ചൊക്കെ അവർക്ക് മനസിലാകണം എങ്കിൽ ഇപ്പം തന്നെ അതിനെ പറ്റി പഠിച്ച് വരണം അത് പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് നല്ല ഗുണങ്ങള് കുട്ടികൾക്ക് ചെയ്യും രണ്ടാമത്തെ ആദായത്തെ കുറിച്ചാണെങ്കിലു അതും അവർക്ക് കൂടുതലായി പറഞ്ഞും മനസ്സിലാകണമെങ്കില് സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ അവർക്കതിൻ്റെ ക്ലാസുകൾ കിട്ടണം എന്നാൽ തന്നെയാണ് അവരും അതേ കുറിച്ച്